നീന്തുമ്പോൾ അപകടം സംഭോതി സംഭവിക്കാതിരിക്കാൻ നമുക്ക് ഫെയിസിനായാലും അതുപോലെ തലയിലായാലും ക്യാപ്പ് അതുപോലെ ഹെൽമെറ്റ് എന്നിവയെല്ലാം ഉണ്ട് ആ തൊപ്പി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം ധരിച്ചില്ലെങ്കിൽ സ്വിമ്മിങ് സ്യൂട്ട് അങ്ങനെയുള്ള സാധനങ്ങള് ധരിച്ച് നീന്തുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല അല്ലെങ്കിൽ പരുക്കുകൾ സംഭവിക്കില്ല അല്ലാത്ത പക്ഷമാണെങ്കിൽ പരുക്കുകൾ സംഭവിക്കുന്നത് നീ സ്വിമ്മിങ് സ്യൂട്ട് അതുപോലെ അതിൻ്റെ ഗ്ലാസ്സ് ഇപ്പോൾ നമുക്ക് ഓക്സിജൻ്റെ മറ്റെ പൈപ്പ് എല്ലാം ഉണ്ട് അപ്പം അതെല്ലാം ഉപയോഗിച്ചച്ചാ നമുക്ക് മാക്സിമം അപകടങ്ങൾ ഒഴിവാക്കാം എന്നാണ് അത്